പ്രാദേശിക വിഭവങ്ങളെന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ വിഭവങ്ങളെന്ന് പറയുന്നത് മാമ്പഴപ്പുളിശ്ശേരി പിന്നെ ചക്കപ്പുഴുക്ക് അവിയൽ ഇതൊക്കെ നമ്മുടെ പരമ്പരാഗം പരമ്പരാഗതമായിട്ടുള്ള വിഭാവങ്ങളന്നെയാണ് മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറയുന്നത് നമ്മൾ മാങ്ങാ നല്ല പഴുത്ത മാമ്പഴം മോരൊഴിച്ച് വെക്കുന്ന കറിയൊക്കെയാണ് മാമ്പഴപ്പുളിശ്ശേരിന്ന് അവിയലെന്ന് പറഞ്ഞാല് എല്ലാ കഷ്ണങ്ങളും കൂടി അതായത് അത്യാവശ്യം വേണംന്നുള്ള പച്ചക്കറികള് ഉള്പ്പെടുന്നൊരു കറിയാണ് അവിയൽ പിന്നെ ചക്കപ്പുഴുക്കെന്ന് പറഞ്ഞാലും നമ്മൾ വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാന് പറ്റണൊരു വിഭവമാണ് ചക്കപ്പുഴുക്ക് ചക്ക നമ്മൾ വേവിച്ചിട്ട് തേങ്ങയും ജീരകം പച്ചമുളകും ഇത്തിരി കുരുമുളക് പൊടിയും മറ്റേ വെളുത്തുള്ളിയൊക്കെ ച ഒതുക്കിച്ചേര്ത്ത് ഇട്ടിട്ട് വയിച്ചിത്തിരി പച്ചമുളക് കുഴച്ചിട്ട് പച്ചക്കറിവേപ്പിലയൊക്കെയിട്ട് വെച്ച് കഴിഞ്ഞാൽ

ചക്കപ്പുഴുക്ക് അടിപൊളിയാണ് പരമ പരമ്പരാഗതമായുള്ള ഭയ വിഭവങ്ങളൊത്തിരിയുണ്ട് എല്ലാംന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക്കിട്ടുന്ന വിഭവങ്ങളന്നെയാണ് അതായത് ഇതൊക്കെത്തന്നെയാണ് പാചകവും ആ പാചകരീതികളെന്നു പറഞ്ഞാൽ നമുക്ക് അമ്മമാരീന്ന് പകര്ന്ന് കിട്ടുന്നതാണ് അതെല്ലാം പരമ്പരാഗതം തന്നെയാണ് ഇപ്പോൾ ഇതിൽ എൻ്റെ മനസ്സിലേക്കിപ്പോൾ ഓടിവരുന്നത് മാമ്പഴപ്പുളിശ്ശേരിയും ചക്കപ്പുഴുക്കുക്കെയാണ് ഓടിയെത്തുന്നത്